കേരളത്തിലെല്ലാവരും മലയാള ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം നമ്മുടെ മാതൃ ഭാഷ മലയാളമാണല്ലോ അപ്പം എല്ലാവർക്കും അറിയില്ലേ പക്ഷെ പല ജില്ലയിലും മ പല മാറ്റങ്ങളുണ്ട് പിന്നെ എനിക്കൊക്കെ കാസർഗോഡത്തെ വർത്തമാനമങ്ങനെ കേട്ടാലേ ഞാൻ പല യുറ്റൂബ് ചാനലൂകളിലൊക്കെ കേൾക്കണ് അങ്ങനെ ക യൂറ്റൂബിലൊക്കെ കാണാറുണ്ട് അങ്ങനെ കാണുമ്പോൾ എനിക്ക് ചിലപ്പം ചിരി വരും കാരണം അതെനിക്കൊന്നും മനസ്സിലാകലില്ല നമ്മുടെ മലയാളഭാഷക്ക് വേറൊരു ശൈലിയാണല്ലോ വേറൊരു ശൈലിയാണല്ലോ പിന്നെല്ലാവരും മല എല്ലാ ആൾ ആളുകളും മലപ്പുറത്തുകാരെ കളിയാക്കി പറയാറുള്ളത് നീയെന്ന് നീയെന്നുള്ളതിനു ഇജ്ജെന്നു പറഞ്ഞിട്ടും പശൂ എന്നുള്ളതിന് പജ്ജ് പറഞ്ഞിട്ടും കയ്യീന്ന്ല്ലെയ്ന് കജ്ജ് പറഞ്ഞിട്ടും നെയ്ന്നുള്ളതിന് നെജ്ജ് പറഞ്ഞിട്ടും അങ്ങനൊക്കെയാണ് എല്ലാവരും കളിയാക്കൽ പക്ഷെ അതൊക്കെ പണ്ടല്ലേ ഞൊ ഇപ്പപ്പത്തൊന്നും ആരും പറയലില്ലല്ലോ ഇപ്പൊക്കെ എല്ലാവരും കയ്യിൽ നിന്നു കൈ പശൂന് പശു നെയ്യിന് നെയ്യ് പിന്നെ അങ്ങനെയല്ലെ പറയാറുള്ളു പിന്നെ ഇപ്പം കുറേ അങ്ങനെയൊക്കെ പറയാൻ നല്ല രീതിയിൽത്തന്നെയല്ലേ എല്ലാവരും സംസാരിക്കലുള്ളു പിന്നിപ്പം കുറെ ബെങ്കാളികൾ ഞമ്മളെ നാട്ടിലേക്കു വന്ന്ണ് എത ബങ്കാളികളും തമിഴന്മാരുമൊക്കെ പല പണിക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ അവര് നമ്മളെക്കാളും നല്ല രീതീല് മലയാളം സംസാരിക്കും നല്ല രീതിയിൽ മലയാളം പറയാറുണ്ട് അതുപോലെ കുറെ മേസ്തിരിമാരും ബസ് ബസ് കണ്ടക്ടറുമാരും ബങ്കാളിഭാഷ പറയുന്നുണ്ട് കാരണം ബെങ്കാ ഈ ബങ്കാളിയെന്നു കേട്ട് പഠിച്ചതാകും അത് ഇക്കാലത്ത് പിന്നെ കുറേ ആളുകൾ കാനഡയിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകാൻ വേണ്ടി പിന്നെ ഇംഗ്ലീഷൊക്കെ നല്ലവണ്ണം പഠിക്കാറുണ്ട്